ഇന്നത്തെ കാലത്ത് കൃഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാർക്കാണെങ്കിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇടുക്കി ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് കാരണം നമ്മൾക്ക് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ട് അധ്വാനിക്കാൻ മനസ്സുമുണ്ടെങ്കിൽ ഏലകൃഷി തന്നത് ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ജീവിക്കാൻ പറ്റും അതിന് ഒരു ഉത്തമ ഉദാഹരണം ഞാനും കൂടിയാണ് കാരണം എനിക്ക് എനിക്കൊരു കുറച്ച് ഏല കൃഷികളുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നു ആരെയും ആശ്രയിക്കാതെ ആരെയും ആശ്രയിക്കാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും കൂടി അതായത് നമ്മൾ ഒരു നല്ലതുപോലെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ മുഴുകി വേണം ചെയ്യാൻ അല്ലാതെ കുറച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് പോയിട്ട് നാളെ വന്ന് ചെയ്ത് അത് പിന്നെ ഇട്ടിട്ട് പോയി പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നല്ല രീതിയിൽ വിജയിക്കും എന്ന് പറയാൻ സാധിക്കില്ല ഒരിക്കലും നമുക്ക് ഗ്രാമീണ സമുദായത്തിലെ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് ആൾക്കാരേ വരുന്നുള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാരും വിദേശത്തും പല നാടുകളിലും ജോലി ചെയ്തിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ചിട്ട് അവർ തിരിച്ച് വന്ന് നമ്മുടെ പിന്നെ കൃഷി തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന പലരും ഉണ്ട് പുതിയ രീതികൾ വിദേശങ്ങളിലൊക്കെ പോയി പഠിച്ച് വരുന്ന ആളുകളെന്ന് ഉദ്ദേശിച്ചാൽ അവർക്ക് അത്യാധുനിക സംവിധാനങ്ങളുള്ളത് ഇപ്പോൾ കുരുമുളകാണെങ്കിലും മെതിക്കാനുള്ളൊരു മെഷീൻ അതുണ്ടെങ്കിൽ നമുക്ക് അത്രയും അയാസം കുറയുക നമ്മുടെ പണി ഭാരം കുറച്ച് നമുക്ക് എങ്ങനെ കൂടുതൽ ആദായമുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ആധുനിക മെഷനറീസ് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളത് യുവതലമുറയ്ക്കൊക്കെ ഒരു ക്ഷീണം ആണ് ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യുക എന്നുള്ളത് പക്ഷേ ഒരു ഒരു കാലം കഴിയുമ്പോൾ സ്വന്തമായി ചിന്തിക്കുമ്പോൾ ഒരു ഇൻകം കിട്ടുന്ന ഒരു മേഖല ഇടുക്കി ജില്ലയിലൊരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മുടെ കൃഷി ആശ്രയിച്ച് മാത്രം ജീവിച്ചവരാണ് കാരണം മക്കളൊക്കെ ഉന്നത നിലയിലെത്തിയവരും ഉണ്ട് കൃഷി ഒരിക്കലും ഒരു മോശം അല്ല നമ്മൾ ചെയ്യുന്ന രീതിയാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നത് യുവതലമുറ ഈ കൃഷിയെ ഒരു തൊഴിലായിട്ട് കാണുന്നത് നല്ലതാണ് പക്ഷേ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഓരോ മാസവും ഇപ്പം സാലറി പോലെ കിട്ടണമെന്നില്ല ഒരിക്കലും കാരണം അതിന് സീസൺ ടൈമിലല്ലേ ഇതൊക്കെ നമുക്ക് ആദായം കിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാശ് കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ അതിനേക്കു അതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അതിന് ചെയ്യേണ്ടതെല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് തിനുള്ളത് കിട്ടും എന്നാണ് നന്നായിട്ട് കിട്ടിയില്ലേലും അത്യാവശ്യം ഒരാ ഒരു കുടുംബത്തിന് ജീവിച്ച് പോകാനുള്ള കിട്ടാൻ ചാൻസ് ഉണ്ട് യുവതലമുറയ് യുവതലമുറയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ല കാരണം നാലാൾ ചോദിക്കുമ്പോൾ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ കൃഷിയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു ബുദ്ധിമുട്ടാണത് അപ്പം മറ്റുള്ളവർ ചോദിക്കും കൃഷിയാണോ കൃഷിക്കാരനൊരു വിലയില്ലാത്ത കാലമാണ് ഇന്നത്തെ കാലത്ത് ഈ പ്രത്യേകച്ച് യുവതലമുറക്കാർക്ക് എന്താ ചെയ്യുന്നത് ഒരു ജോലിയുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ജോലിയാണെങ്കിലും മതി അതിന് ഭയങ്കര അന്തസ്സാണ് പക്ഷേ കൃഷിയാണെന്ന് പറഞ്ഞാൽ അതിന് നല്ല നന്നായിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും അവൻ കൃഷിക്കാരനാ ഇന്നത്തെ കാലത്ത് ഒരു ആണുങ്ങൾക്ക് ഒരു പെണ്ണ് കെട്ടാൻ പോലും സത്യം പറഞ്ഞാൽ കൃഷിയാണെങ്കിൽ നന്നായിട്ടൊരു പെണ്ണ് കെട്ടാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് പെണ്ണ് കെട്ടാൻ പോലും സാധിക്കത്തില്ല പെണ്ണ് കെട്ടണമെങ്കിൽ പോലും നമ്മൾ അത് അതുപോലെയാണിന്നത്തെ സമൂഹം അതുപോലെ മാറിയിരിക്കുന്നത് ഗ്രാമീണ സമുദായമാണെങ്കിലും ഏത് മേഖലയിലുള്ള ആണെങ്കിലും ഗ്രാമീണ അല്ല നഗരത്തിലുള്ളവർ പോലും ഇന്നത്തെ കാലത്ത് ഈ ഇടുക്കി ജില്ലയിൽ പാട്ടത്തിനെടുത്ത് ഒരുപാട് ഏല കൃഷിയൊക്കെ ചെയ്യുന്നവരെ കുറിച്ച് എനിക്ക് പരിചയം ഉണ്ട് അപ്പം ഇന്നത്തെ കാലത്ത് എന്ത് യുവതലമുറ എല്ലാം പ്രായമുള്ളവരാണ് കൂടുതലും ചെയ്യുന്നത് യുവ തലമുറയ്ക്ക് ഇറങ്ങാൻ മടിയാണ് പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം അവർ മനസ്സിലാക്കും കൃഷി ചെയ്തിട്ടും കുഴപ്പം ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഇറങ്ങിത്തിരിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം പുതിയ രീതികൾ ആധുനിക മിഷ്നറീസ് മാത്രമേ ഉള്ളൂ ആധുനിക മിഷ്നറീസ് എങ്ങനെ ഇപ്പം ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് വെസ്റ്റേൺ സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരുപാട് അവരുടെ കൂലി കുറവായതുകൊണ്ട് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ബംഗാൾ ആസാമ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ജോലി കിട്ടുന്നവർക്ക് വലിയൊരു കാര്യമാണ് ഇവിടുത്തെ ശമ്പളം കിട്ടുന്നത് അപ്പോൾ അവരുള്ളത് കൊണ്ട് ഇന്നത്തെ യുവ തലമുറക്ക് പണി ചെയ്യാനുള്ള കായികാധ്വാനം കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഈൽഡ് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുന്നുണ്ട് അവർ വഴി നമുക്ക് കിട്ടുന്നുണ്ട് ഗൾഫിൽ പോയി കിടന്നാൽ എവിടെ കിടന്നാൽ ഇങ്ങനെയൊക്കെ അല്ലേ എല്ലാവരും ജീവിക്കുന്നത് കഷ്ടപ്പെട്ടാണ് പക്ഷേ നാട്ടിലുള്ളവർക്ക് കഷ്ടപ്പെടാനുള്ള മടി കാരണമാണ് യുവ തലമുറ ഇത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ചെറുപ്പക്കാർ കൃഷിയിലേക്കിറങ്ങി വന്നാൽ എല്ലാവരുംകൂടെ ഇറങ്ങി വന്നാൽ കൃഷി മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും എന്നുവെച്ചാൽ ക്യാഷ് ആർക്കും തികയാതെ വരും ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലത് ചെറുപ്പക്കാർ ഉള്ള അത്രയും മതി കൂടുതലായിട്ട് ആൾക്കാരിറങ്ങി കഴിയുമ്പോൾ കൃഷിയുടെ വില തീരെ താഴ്ന്ന് പോവും പിന്നെ ആർക്കും ജീവിക്കാൻ മേലാത്ത അവസ്ഥയാവും അപ്പം എപ്പോഴെങ്കിലും നല്ല ജോലി കിട്ടുന്നയിടത്ത് പോവും ചെറുപ്പക്കാരെല്ലാവരും കൃഷിയിലേക്ക് വരണം എന്ന് ഒരു താല്പര്യവും ഇല്ല